നമ്മളിവിടെ എല്ലാം ആഘോഷിക്കുന്ന ആള്ക്കാരാണ് അങ്ങനെ പാരമ്പര്യം പ്രാദേശിക ഉത്സവം അങ്ങനെയൊന്നും അല്ല വിശ്വാസങ്ങളില് പെട്ട എല്ലാം നമ്മള് ആഘോഷിക്കും ദീപാവലി ആഘോഷിക്കും ഹോളി ആഘോഷിക്കും ഇവിടേന്ന് വച്ചിട്ടുണ്ടെങ്കിൽ ഹോളിയൊക്കെ ദീപാവലി നമ്മുടെ ഹിന്ദുക്കള് ഹിന്ദുക്കളില് മാത്രം കാണുന്ന ഒരു ആഘോഷമാണെങ്കില് ഹോളി ജാതിമതഭേദമന്യേ കോളേജുകളിലും വളരെ നിറസാന്നിദ്ധ്യമായിട്ട് കോളേജുകളില് കോളേജുകളിലാണ് ഇപ്പം യുവ യുവത്വത്തിന്റെ തലമുറയാണ് ഹോളിയൊക്കെ ഏറ്റെടുത്തിരിക്കുന്നത് പിന്നെ സംക്രാന്തി ആഘോഷിക്കും അതേപോലെ തന്നെ ഓണം ഓണം എല്ലാവരുടെയും ഉത്സവമാണ് അതിനു ജാതിയോ മതമോ ഭാ അങ്ങനെ ഭാഷയോ ഒന്നുമില്ലാതെ കേരളത്തിന്റെ ത കേരളത്തിന്റെ ദേശിയ ഉത്സവമാണ് കേ പിന്നേ ഓണം അത് എല്ലാവരും നമ്മുടെ കോഴിക്കോടുക്കാര്ക്ക് പ്രത്യേകിച്ച് കോഴിക്കോട്ടുകാര്ക്ക് ഭയങ്കര സ്നേഹത്തിന്റെ ഇതിന്റെ ആള്ക്കാരാണ് കോഴിക്കോട്ടില് അത് വലിയതാണ് പിന്നെ ഇത് ഇത് നമ്മുടെ എന്താ പറയുക നമ്മുടെ ഒരു ഒരു ഫെസ്റ്റിവല് ആണ് നമ്മളെ സംബന്ധിച്ചടുത്തോളം കോഴിക്കോടിനെ സംബന്ധിച്ചടുത്തോളം ഇത് ഒരു ഇതാണ് പിന്നെ സാധാരണ ഉത്സവങ്ങളെല്ലാം ആഘോഷിക്കുന്നുണ്ട് പക്ഷെ നമ്മള് കൂടുതലും ആഘോഷിക്കുന്നത് ഓണം ഈദ് ദീപാവലി ഇപ്പത്തെ ആണെങ്കില് ഇപ്പത്തെ കുട്ടികളാണെങ്കില് ഹോളി കളറില് മുങ്ങി ഹോളി ചെയ്യുന്ന ഒരു തലമുറയാണ് ഇപ്പം വാര്ത്തെടുത്ത് വരുന്നത്